ചിത്രകലയില് പ്രവേശിക്കുന്നവർക്ക് സാധാരണ ചിത്രകലയെ കുറിച്ചൊര് അവബോധമുണ്ടാകുമല്ലോ കൃത്യമായിട്ടുള്ള അത് ഇല്ലാത്തവരും ഇല്ലാതെ ഈ ചിത്രകല തുടങ്ങുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അതൊന്ന് സംശയങ്ങളൊന്നും അവര് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ വീഴ്ച പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള ചിത്രകലയിൽ തന്നെ ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് അവര് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഒര് നല്ല കലാകാരനായിട്ട് മാറാൻ പറ്റും പിന്നെ ഏറ്റവും ഒരു കലാ നല്ല കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായി അത്യാ ഏറ്റവും അത്യാവശ്യമായതും നല്ല പരിശീലനമാണ് കൂടുതല് വരയ്ക്കും തോറും കൂടുതല് നല്ല നല്ല ചിത്രങ്ങള് വരയ്ക്കാൻ അവർക്ക് പറ്റും കൃത്യമായ അളവ് പിന്നെ ഷേഡിങ്ങുകളെല്ലാം വളരെ നല്ലതായിട്ട് ചെയ് നല്ല രീതിയില് വരയ്ക്കണമെങ്കില് അതിന് പരിശീലനം ആവശ്യമാണ് പിന്നെ ഒര് നല്ല സ് കലാക ചിത്രം വരയ്ക്കുന്നൊര് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സില് കാണുന്നത് ക്യാൻവാസില് പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒര് കഴിവ് അവര് രൂപപ്പെടുത്തി എടുക്കണം കാണുന്നകാര്യങ്ങൾ മാത്രം പകർത്തി വരയ്ക്കുക ഒന്നും അല്ല മനസ്സിലുണ്ടാകുന്നത് കൂടെ കൃത്യമായി ക്യാൻവാസിൽ പകർത്താൻ കഴിയുന്നതാണിക് കഴിയുന്നതായിരിക്കണം ഒര് നല്ല കലാകാരൻ